ഇപ്പോൾ രാഷ്ട്രീയ സംഘർഷം സൃഷ്ടിക്കാൻ പല രീതിയിലുള്ള ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് കാരണം ഇപ്പം മതത്തെ ചൊല്ലിയാണ് രാഷ്ട്രീയ സംഘർഷവും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനിയിപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉള്ളത് അപ്പോൾ ഒരു മതം മാത്രം മതി എന്ന ഒരു നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പറയുന്നത് മറ്റു മതക്കാരെ കാണുമ്പം അവരെ അടിച്ചു കൊല്ലാൻ ഒക്കെയാണ് ശ്രമിക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പർദ്ദ ഇട്ട് പോകുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ തല്ലുക മുസ്ലിംസ് ആണെന്ന് അറിയുമ്പം അവരെ വല്ലാണ്ട് ഉപദ്രവിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇവർ ചെയ്യുന്നത് ഇപ്പം മതത്തെ ചൊല്ലിയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇവർ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നത് അപ്പോൾ നമ്മൾ മുസ്ലിംസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ അധികം അടിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അനുഭവിക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ കൂടുതൽ ആയിട്ടും അനുഭവിക്കാറില്ല കാരണം നമ്മളീ ഇതിൽ ചാനലിലൂടെ ആണ് അറിയുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ അതായത് എല്ലാ മതക്കാർക്കും ജീവിക്കാൻ ഉള്ള ഒരു സൗകര്യം കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്